മലയാള ഭാഷ മലയാള ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ പുള്ളിയാണ് മലയാള ഭാഷയെ കൃത്യമാത്രമായ അക്ഷരങ്ങളായി വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ് മലയാള ഭാഷ പ്രാചീനയമായി ഉൾക്കൊണ്ടത് കന്നഡ സാംസ്കൃത ആൻഡ് തമിഴിൽ എന്നീ മൂന്ന് ലാംഗ്വേജുകളിൽ നിന്നാണ് ഈ മൂന്ന് ഭാഷകളിൽ നിന്നുമാണ് പ്രധാനമായും മലയാളം എന്ന ഭാഷ രൂപീകൃതമായിരിക്കുന്നത്